ഇന്ത്യയിൽ സാങ്കേതിക വിദ്യാഭ്യാസം വിനോദ വ്യാപാരം ഗതാഗതം തുടങ്ങിയ മേഖലകളിൽ വലിയ മാറ്റങ്ങളുണ്ടോയെന്ന് ചോദിച്ചാലുണ്ട് വിദ്യാഭ്യാസത്തിൽ എസ് റ്റി കുട്ടികൾ എസ് റ്റി വിഭാഗ കുട്ടികൾക്ക് വളരെയധികം സൗജന്യവും പരിഷ്കാരവുമെല്ലാം കൊടുക്കുന്നുണ്ട് വിനോദ കേന്ദ്രങ്ങൾ വളരെയധികം മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടിപ്പോൾ വിനോദ കേന്ദ്രം അപ്ഡേറ്റായിരിക്കുന്നു വ്യാപാരത്തിൽ കുറച്ച് ടെക്നോളജീസ് അങ്ങനെ പറയുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ കൊണ്ട് വന്നിട്ടുണ്ട് ഗതാഗതം തുടങ്ങിയവ ഗതാഗതത്തിൽ അതായത് നമുക്ക് പറയാനുള്ളത് തൊഴിലുറപ്പുകാരെയാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ളത് റോഡ് സൈഡിലുള്ള കാടുകൾ അത് ഇത് എല്ലാം വെട്ടി ക്ലീനാക്കി തരുന്നു റോഡ് കുണ്ട് കുഴിയൊക്കെ അടച്ചിട്ട് തരുന്നു പക്ഷെ അത്രയൊന്നും അടച്ചിട്ട് തരുന്നില്ല എന്നാണ് പറയാനുള്ളത് നമ്മളുടെ ഇവിടുള്ള റോഡുകളിലൊക്കെ പകുതി കുണ്ടും കുഴിയും തന്നെയാണ് വിദ്യാഭ്യാസം നല്ല വിദ്യാഭ്യാസം എല്ലാവർക്കും സൗജന്യമാണ് എസ് റ്റി കുട്ടികൾക്ക് വളരെയധികം എന്താ പറയുക ഗ്രാൻഡ് അങ്ങനെ തുടങ്ങിയവ കൊടുക്കുന്നുണ്ട് ആരെങ്കിലുമറിയാമോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മുഖ്യമന്ത്രി അങ്ങനെ കുറച്ച് ആൾക്കാര് തന്നെയാണ് കഴിഞ്ഞ കാലത്തിനെക്കാട്ടും കുറച്ചും കൂടി കുറച്ചും കൂടി അല്ല വളരെ അധികം വികി വളരെയധികം വികസിപ്പിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ടെക്നോളജി കാര്യങ്ങള് വിദ്യാഭ്യാസത്തില് വ്യാപാരത്തില് വിനോദസഞ്ചാരത്തില് ഗതാഗതം അങ്ങനെ തുടങ്ങിയവയില് വളരധികം മാറ്റങ്ങളുണ്ട്